എൻ്റെ നാട് ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായി പ്രധാനമായും പച്ചക്കറി മീൻ തുടങ്ങിയ സാധനങ്ങൾ വാങ്ങുവാനായി ചന്തയിലേക്കാണ് പോകാറുള്ളത് അതുപോലെത്തന്നെ ആത്മീയ ജീവിതത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഇവിടെ ജാതിമതഭേദമെന്യേ മുസ്ലിം ക്രൈസ്തവ ഹിന്ദു സമുദായങ്ങൾ ഒരുമിച്ച് വസിക്കുന്ന ഒരു മേഖലയാണ് അവരുടെയെല്ലാം പ്രാർത്ഥനാലയം അടുത്തടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്നു അത് ആയതിനാൽ തന്നെ ഇവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ ആത്മീയ ജീവിതത്തിനും നവീകരണത്തിനും അതിൽ വളർച്ച സാദ്ധ്യമാക്കുന്നതിനും വേണ്ടി പ്രാർത്ഥനാലയങ്ങളിൽ പോകാറുണ്ട് അതുപോലെത്തന്നാ ഈ പ്രദേശം ചെറിയ മലകളും കുന്നുകളും ഒക്കെ നിറഞ്ഞ പ്രദേശമാണ് ഇപ്പോൾ യുവാക്കളായ മനുഷ്യർ അവരുടെ